നമ്മളുടെ ഈ നാട് എന്നു പറയുന്നത് ആ വനമേഖലയും കൃഷിപ്പണികാരും കൃഷികളും ഒക്കെ ആയി ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ധാരാളമായ അപകടങ്ങൾ അതായത് പ്രാണികളുടെ കടിയാണ് പാമ്പുകളുടെ ഉപദ്രവങ്ങൾ ആ തേൾ തേനീച്ച ഈ വനമേഖല ആയത് കാരണം ഇതിൻ്റെ എല്ലാം ഒരു അതിപ്രസരം ഇതാ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ദിവസം പല ദിവസങ്ങളിലും പല വാർത്തകളും കേൾക്കാറുണ്ട് തേനീച്ച കുത്തുന്നതും കടന്നൽ കുത്തുന്നതും തേൾ കുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ആ ഉപദ്രവങ്ങൾക്ക് ഈ ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നത് ഇവിടെ മഞ്ഞൾ അരച്ചിടുക എന്നുള്ളതാണ് പ്രാഥമിക ചികിത്സ നീരൊക്കെ വയ്ക്കുന്നതിന് മുമ്പായിട്ട് പച്ച മഞ്ഞൾ അരച്ചിട്ട് ചുറ്റിലും കടിയേറ്റ ഭാഗത്ത് കുത്തേറ്റ ഭാഗത്ത് നന്നായിട്ട് അരച്ചിടും അതാണ് ഇവിടെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രാഥമിക പ്രാഥമികമായ ചികിത്സ ആ പിന്നെ നമ്മടെ അതുകൊണ്ട് നിന്നില്ലെങ്കിൽ ഇവിടെ അടുത്ത് തൊട്ടടുത്ത ഒരു വിഷകാരി ഉണ്ട് അതായത് പണ്ട് മുതലേ ഇവർ ഇങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവിടെ പോയി നമ്മൾ ആ പച്ച മരുന്നുകൾ ഒരു വൈദ്യനാണ് അവിടെ ചെന്നിട്ട് നമ്മൾ വൈദ്യനെ കണ്ടു നമ്മൾ പറഞ്ഞു അത് നമ്മൾ ചെയ്യും എന്നിട്ടും പറ്റാത്ത ഒരു അവസരം വന്നെങ്കിലെ സാഹചര്യം വന്നെങ്കിലെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളൂ ചിലർ തേനീച്ച കുത്തിയാൽ കടന്നൽ കുത്തിയാൽ പച്ചമഞ്ഞളിനോടൊപ്പം ഉപ്പ് പിന്നെ തുരുമ്പ് നല്ലതാണെന്നും നല്ലതാണെന്ന ചില പ്രായമായവർ തുരുമ്പുള്ള ലോഹങ്ങൾ കടിയേറ്റ ഭാഗത്ത് വച്ചാൽ നല്ലതാണെന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർ അങ്ങനെ ചെയ്യാറുമുണ്ട് ചിലർകൊക്കെ അത് പ്രയോജനപ്പെടാറുമുണ്ട് പിന്നെ തുളസി തുളസി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് എടുത്ത് ആ ഈ മുറിവേറ്റ ഭാഗങ്ങളിൽ ധാര കോരുന്നത് നല്ലതാണ് വേദന ശമിക്കാനൊക്കെ അത് നല്ലതാണ് അങ്ങനെ പല രീതിയിലുള്ള ആ ചികിത്സ ക്രമങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട് എങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ ആ അപകടങ്ങൾക്കാണ് അതായത് ഒന്നോ രണ്ടോ തേനീച്ച കുത്തിയാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കടന്നൽ കുത്തിയാൽ ഒക്കെയാണ് ഇത് സാധ്യമാവുക കുറേയേറേ കൂട്ടമായിട്ട് വന്നു ഉപദ്രവിക്കയാണെങ്കിൽ നമ്മൾ ആദ്യമാണ് ഈ പറയുന്നത്

പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോവാറുള്ളത് പോവാറാണ് പതിവ് ഇത് കിഡ്നിയെ ബാധിക്കുന്ന കാര്യങ്ങളായത് കൊണ്ട് നമ്മൾ വളരെ കൂടിയ വലിയ നിലയിലുള്ള അപകടങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവും അതല്ല എങ്കിൽ നമ്മൾ ആ നമുക്ക് അറിയാവുന്ന പച്ചമഞ്ഞൾ തുളസി ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ധാര കോരുകയോ അരച്ചിടുകയോ ഒക്കെ ചെയ്താണ് നമ്മൾ നമ്മുടെ ഈ അപകടാവസ്ഥയെ തരണം ചെയ്യാറുള്ളത്